ഹലോ അംവ വയനാട് റെസ്റ്റോറൻറ്റലെ ഞാൻ കുറച്ച് കുറച്ച് മുന്നേ ഒരു ഫുഡ് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരിന്നു രണ്ട് ബിരിയാണിയായിരുന്നു അത് ഭയങ്കര സ്മെലാണല്ലോ അതായത് പുതിയതിൻ്റെ ഒരു മണമൊന്നും ഇല്ല ആ ബിരിയാണിക്ക് ഭയങ്കര സ്മെലുവാണ് പിന്നെ കഴിക്കുമ്പൊരു പഴയതിൻറ്റൊരു ചൊവയും ഉണ്ട് അതായത് ഒരു ഒരുമാതിരി കേടായിട്ടുല്ലൊരു മണവുവാണ് ആ നിങ്ങളിന്ന് വെച്ചതായിരിക്കും പക്ഷെ എനിക്ക് തന്നത് ചിലപ്പോൾ ഇന്നലെ പിന്നെ ഇന്നലെ വെച്ചതായിരിക്കും കാരണം അത് ഭയങ്കര മോശമാണ് അപ്പോൾ ഒന്നൂല്ലെങ്കിൽ നിങ്ങളിത് റിട്ടേൺ എടുക്കുക ഞങ്ങളുടെ പ്യാ ക്യാഷ് തിരിച്ച് തരിക അല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നിലെ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് കംപ്ലയ്ന്റ്റ് ചെയ്യും അല്ലെങ്കിലും ഇത് കംപ്ലയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നിങ്ങളെ പരിചയം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ കംപ്ലയിറ്റ് ആ ഒരു രീതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം ഒന്നുല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക ചെയ്ത് തരിക അതായത് അത്രക്ക് ഇതിൻ്റെ നിലവാരം അത്ര മോശമാണ് ഒന്നാമത് ഫ്രഷല്ല ഫ്രഷല്ലെ പിന്നെ പോട്ടെ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഉച്ചയാവുമ്പളത്തേക്ക് തണുത്തൂന്ന് വെക്കാം ഭയങ്കര ദുർഗന്ധവും അങ്ങനൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് പിന്നെ ഒന്ന് പിന്നെ ഒന്നൂല്ലെ റീഫണ്ട് തരിക അല്ലെങ്കിൽ പിന്നെ ഈ ഫുഡ് റിട്ടേൺ എടുക്കുക